എൻ്റെ സ്മാർട്ട് ഫോൺ അപ്ഗ്രേഡ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഫോണിൻ്റെ ഒരു പ്രത്യേക മോഡൽ ആസ്യൂസ് മോഡൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് എൻ്റെ ബജറ്റിന് അനുയോജ്യമായ രീതിയിൽ അപ്ഗ്രേഡ് ചെയ്യുവാൻ സാധിക്കുമോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത് ആയതിനാൽ ടി മോഡലിൻ്റെ നിലവിലെ വിലയെക്കുറിച്ച് എന്തെങ്കിലും പ്രമോഷനുകൾ ആകർഷകമായ വിലയിൽ നിങ്ങൾക്ക് എന്തേലും ഓഫറുകൾ നൽകുവാൻ പറ്റുമോ എന്നുള്ള വിവരം അറിയുന്നതിന് വേണ്ടിയാണ് എനിക്ക് നല്ല മോഡലും മെച്ചപ്പെട്ട വിലയും ലക്ഷ്യമാക്കുന്ന രീതിയിൽ ഏത് മോഡലാണ് നിങ്ങൾ നിർദ്ദേശിക്കുന്നതെന്ന് അറിയിക്കേണ്ടതാണ്